ആ ഹലോ കൊച്ചേ എന്താ മോളെ വിളിച്ചത് ആ ഹലോ അപ്പം ആ ആ ആ ആ ആണോ അയ്യോ അത് കൊണ്ട് വന്നപ്പം മോൾ പറഞ്ഞില്ലായിരുന്നല്ലോ എനിക്ക് സ്റ്റിച്ചിനെ ഒരു കല്ല്യാണത്തിന്റെ വന്നേക്കുന്നുണ്ട് കുറച്ച് തിരക്കാണ് അത് കൊണ്ട് കുറെ ഡ്രസ്സൊണ്ടായിരുന്നു കുറെ പേര്ക്ക് അവർ ഒരു മ് കല്ല്യാണം അടുത്തു ഒരു കല്ല്യാണത്തിനായിരുന്നു അത് അടുത്ത ദിവസം കൊടുക്കേണ്ടത് ആയിരുന്നല്ലോ അത്യാവശ്യമാണോ ആ ആ ആ ഹാ ആണോ ആ ആ ആ ഹാ ആണോ ആ ആ അത് ആ ആണ് ആണോ അതെ ആ ആ അത്യാവശ്യമായിരുന്നത് ആ അത്യാവശ്യം ആയിരുന്നല്ലേ ആ ആ ഓക്കെ ആ ആ പിന്നെ അതൊക്കെ ശരിയാണ് എന്റെ കൂടെ തയ്ക്കാനുള്ള ആളും ഇല്ല ഞാൻ തന്നെയായി പോയി അപ്പം ആ എന്റെ കൂടെ ഉള്ള ആള്ക്ക് സുഖം ഇല്ല അത് കൊണ്ട് പുള്ളിക്കാരി ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ലീവാ അത്കൊണ്ട് ഞാന് തന്നേയുള്ളു അതാണ് എനിക്കൊരു പാട് മോൾക്ക് അത്യാവശ്യമാണോ അല്ലേ ആ ആ ആ ഓക്കെ ആ ഞാന് നോക്കാം അപ്പോൾ അന്നേരം ഇച്ചിരി റേറ്റ് മ് കൂടുതൽ തരണം കാരണം ഞാൻ ആ രാത്രിയിൽ ഒക്കെയെ രാത്രിയിലൊക്കെ ഇരുന്ന് ഞാൻ തയ്ക്കണ്ടേ അത്കൊണ്ടാണ് ആ ആ ഓക്കെ ആ ആ ഓക്കെ ആ ഞാൻ മാക്സിമം ആ ആ ആ ആണോ ഓക്കെ ഓക്കെ ആ ആ ആ ആ ആ ആ ഇച്ചിരി ഇറക്കണം അല്ലെ ആ ആ ഓക്കെ ആ ആം അങ്ങനെ ചെയ്യാമേ മ് ആ മതി ഓക്കെ ആ ആ ആ ആ ആ ആ

ആ ഓക്കെ വെയ്ക്കാമേ ആ ആ ഇത്തിരി ആ ആ ഫുള്ള് വെയ്ക്കാൻ ആ നോക്കാം ആ ഓക്കെ ആ അതാ തുണി ആ അത് ഉണ്ടെന്ന് തോന്നുന്നു തുണി ഉണ്ടെന്ന് തോന്നുന്നു ആ ആ ആ ഓക്കെ ആ ആ ആ ഫുൾ ആ ആ

ആ ഉണ്ട് ആ ഓക്കെ ആ അത് ഞാന് മേടിച്ച് വെച്ചോളാം ആ അത് കുഴപ്പമില്ല വെച്ചോളാവേ ആ ആ എനിക്ക് അങ്ങനെ തിരക്കായി പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ ആ ആ ഓക്കെ ആ ഞാൻ ആ ആ ആ ആ ഓക്കെ ആ ആ ഓക്കെ കുഴപ്പമില്ല അത് ചെയ്ത് തരാമേ ഇത് ഇച്ചിരി തിരക്ക് ഇങ്ങനെ കല്ല്യാണത്തിന്റെ കേസിലാണ് നമുക്ക് മാറ്റി വെയ്ക്കാനും പറ്റില്ലല്ലോ തന്നെ ആ ആ അത്കൊണ്ടാണ് ആ ഓക്കെ ആ ആ ആ ആണോ ആ ആ ആ ഓക്കെ കുഴപ്പമില്ല നമുക്ക് മാക്സിമ ചെയ്യാട്ടോ ആ ആ ഇനി വേറെ എന്തേലും ആ ആ ആ ഓക്കെ ആ ആ ആ ഓക്കെ ആ ആ ആ ആ ആ ആ ആ അതവിടെ എങ്ങനെ സൈഡിലായിട്ട് ആ ആ ആ ആം അത് ഓക്കെ ആ ഓക്കെ ആ ആ ആ ആ വെച്ചേക്കാമേ ആ എന്നാൽ അത് ചെയ്യാം ആ ഓക്കെ ആ മ് മ് ആ ആ ആ മതി ഓക്കെ ആ മ് ആ അളവൊക്കെ ഇന്നാൾ കറക്റ്റളവല്ലേ ആ ഉണ്ട് ഉണ്ട് അളവുണ്ട് ആ ആ ആ ആ ഓക്കെ ആ അളവ് തന്നെ മതിയല്ലേ ബോട്ട അല്ലെ അത് ആ ടോപ്പിന് ലെഗ്ത് കൂട്ടുക വല്ലതും വേണോ ആ ആ ആ ലെഗ്ത് ആ ഓക്കെ അത് മതിയോ ആ ആ ആ പാന്റളവെൻറ്റേലുണ്ട് ആ ആ അപ്പം ലേയ്സ് വെക്കണം പിന്നെ ഓക്കെ കയ്യിന് ഫുള് സ്ലീവ് വേണമല്ലേ ഓക്കെ മ് ആ ആ ആ ആ ആ ആ ആ എന്നാൽ വാങ്ങിച്ചോണ്ട് വരുമോ മ് എന്നാൽ ഓക്കെ ആ ഓക്കെ ഓക്കെ